ഇവിടെ വാഴക്കൃഷി ചെയ്യുന്നുണ്ട് ധാരാളം കർഷകർ ഇവിടെ ഏറ്റവും കൂടുതൽ വാഴക്കൃഷിയാണ് പിന്നെ ഫാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് പിന്നെ കപ്പയില്ലേ കപ്പ കൃഷി ചെയ്യുന്നവരുണ്ട് കവുങ്ങ് ഉള്ളവരുണ്ട് പിന്നെ പശു പശു ഒക്കെ വളർത്തുന്നുണ്ട് അത് വ്യവസായ മാർഗ്ഗമാണല്ലോ പിന്നെ ഉള്ളതെന്നു വച്ചാൽ നെല്ല് ഉണ്ട് ഇവിടെ ധാരമാളായിട്ട് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് കാപ്പി കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ റബ്ബർ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ കുരുമുളക്ക് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ കുറേ എല്ലാർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത് വ്യവസായത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഉള്ളത് റബ്ബർ തെങ്ങ് കവുങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒക്കെ ആണ് ഇവിടെ എൻ്റെ ഒരു ചെറിയ ഗ്രാമം ആണ് ഈ ഗ്രാമത്തിൽ ഇതൊക്കെ ആണ് ഉള്ളത് ഏറ്റവും പ്രധാനമായും വാഴക്കൃഷി നെല്ല് കപ്പ തുടങ്ങിയവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്